ആ അതെ അതെ

ആ നിങ്ങള് പ്ലേസ് ഏതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ ആ

ഇവിടെ നമുക്കെന്ന് പറയുന്നത് ഒന്ന് ഫേമസ് ആയിട്ടുള്ളത് നിലമ്പൂര് നിങ്ങള്ക്കറിയാമായിരിക്കും തേക്ക് മ്യൂസിയം ആ അതേപോലെ കനോളി പ്ലോട്ടുണ്ട് അവിടെത്തന്നെ അവിടെയൊക്കെയാണുള്ളത് അതൊക്കെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഏരിയകളാണല്ലോ പിന്നെ നമ്മുടെ പാണ്ടിക്കാട് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരുപാട് ആലിമുസ്ലിയാർ സ്മാരകം അതേപോലെ പിന്നെ മൊയ്ദുണ്ണി പാടം ആ അതൊക്കെ വരുന്നുണ്ട് അപ്പോള് നമ്മുടെ ഒരു പത്ത് ദിവസത്തെ പാക്കേജുണ്ട് പത്ത് ദിവസത്തെ പാക്കേജാകുമ്പോള് നമുക്ക് എങ്ങനെ ഓക്കെ അങ്ങനെയാണെങ്കില് നമുക്ക് രണ്ട് ദിവസത്തെ പാക്കേജ് എടുക്കാം അല്ലെങ്കില് വൺ ഡേ ഉണ്ട് വൺ ഡേ ആകുമ്പോള് എന്താണെന്നുവെച്ചാല് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കുറയും ആ അതാണ് ടു ഡേയ്സ് എടുക്കാം എന്നാല് എങ്ങനെ ആ ഗൈഡുണ്ടാകും നമ്മുടെ ഒരു ഗൈഡിനെ ആക്കിത്തരും പിന്നെ ഫുഡും കാര്യങ്ങളുമൊക്കെ ഇതിലുണ്ടാകും ആ ആ ഇനി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനുള്ളത് നമ്മള് വാങ്ങേണ്ടി വരും നമ്മുടെ ട്രാവൽസിൻ്റെ ഫുഡും അതില് ജ്യൂസും കാര്യങ്ങളും അതൊക്കെ കറക്റ്റ് ഉണ്ടാകും പിന്നെ നിങ്ങള് എത്രയാളുണ്ട് പെർ ഹെഡ് നാല് അഞ്ഞൂറാണ് നമ്മള് ഉദ്ദേശിക്കുന്നത് മൂന്നാള് അപ്പോള് നമുക്കങ്ങനെ ചെയ്യാം എന്നാല് പിന്നെ റൂമും കാര്യങ്ങളുമൊക്കെ നമുക്ക് എടുക്കാം ഒക്കെ ഇതിലടങ്ങും നാല് അഞ്ഞൂറില് നമുക്ക് മൊത്തത്തിൽ സെറ്റാക്കിത്തരാൻ കഴിയും ആ ഒക്കെ ഇതില് എങ്ങനെ ആ എൻട്രി ചാർജല്ലേ ആ എൻട്രി ചാർജൊക്കെ നമ്മള് ഇതില് ഉൾക്കൊള്ളിക്കും ആ ഓ അപ്പോള് ഏതായാലും നിങ്ങളൊന്ന് തീരുമാനിച്ചിട്ട് വിളിക്കൂ നാല് അഞ്ഞൂറാണ് നമുക്ക് പെർ ഹെഡ് വരുന്നത് നാല് അഞ്ഞൂറ് അത് നമുക്കെന്തെങ്കിലും ചെയ്യാം നമ്മള് ആളുകള് കൂടുന്നതിന് അനുസരിച്ച് നമ്മള് ഇതാക്കലാണ് സെറ്റാക്കലാണ് ഓക്കെ ഓക്കെ എന്നാല് ഓക്കെ താങ്ക് യൂ